സഹകരണ സ്ഥാപനം കാർഷിക മേഖലയായിട്ട് ഒരുപാട് ബന്ധം പുലര്ത്തിയിട്ടുണ്ട് ലോണുകളുടെ കേസിലായിക്കോട്ടെ എല്ലാം കൃഷിക്കാരെ എങ്ങനെയൊക്കെ സഹായിക്കാമോ എന്നതാണ് അവരുദ്ദേശിക്കുന്നത് അതുപോലെതന്നെ കൃഷിക്കാരെ എങ്ങനെയൊക്കെ പറ്റിക്കാമോ അവരുടെ അടുത്തുനിന്ന് എത്രത്തോളം നഷ്ടമോ ഇല്ലെങ്കിൽ ലാഭം പിടിച്ചുപറ്റാമോ അതാണ് അവരുടെ മെയിൻ ലക്ഷ്യം സഹകരണ സ്ഥാപനം ഈ കർഷകരുമായിട്ടൊരു ബന്ധം പുലർത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ ഉദ്ദേശം എന്നു പറയുന്നത് ഇതുതന്നെയാണ് കർഷകനാണ് ഇവിടെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നു എന്നാൽ അവർക്കെന്നും വേണ്ടത് കിട്ടുന്നുമില്ല അവർക്കെന്നും കഷ്ടപ്പാട് മാത്രമേ ഉള്ളൂ എന്നാൽ ലാഭമോ അവർക്കില്ല ഈ പറയുന്ന ലാഭമൊക്കെ ആർക്കാണ് ഒന്നില്ലെങ്കിൽ അവർ കൃഷി ചെയ്ത് സാധനങ്ങൾ മേടിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ സഹകരണ സ്ഥപനമായിട്ട് ബന്ധമായിട്ട് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടവർക്ക് കാര്ഷിക മേഖലയൊക്കെ ഭയങ്കര മോശത്തിലേക്കിപ്പോൾ പോവുന്നത് നമ്മൾ നാളെയൊരു സമരത്തോടെ ഇപ്പോൾ കാപ്പിക്ക് വിലയുണ്ട് എന്നാൽ കുരുമുളകിനിന്നൊരു വിലയുമില്ല എന്നാൽ കാപ്പി കുറവുള്ള ആൾക്കാരാണ് ഭൂരിഭാഗം പേരും ഈ വട്ടമൊക്കെ എല്ലാവർക്കും കാപ്പി കുറവാണ് കർഷകരുടെ അവസ്ഥ ഭയങ്കര മോശത്തിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അവർ ഈ വിചാരിക്കുന്നതുപോലെ അവർക്കൊന്നും കിട്ടുന്നില്ല എന്നാൽ അവർ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നുണ്ട് എന്നാൽ അവർക്കതിനുള്ളതൊന്നും കിട്ടുന്നില്ല ഒന്നാമത്തെ പ്രശ്നം ഈ വെയിൽ കാരണം വെള്ളം വേണ്ട സമയത്ത് വെള്ളവും ലഭിക്കില്ല വെയിൽ വേണ്ട സമയത്ത് വെയിലും കിട്ടില്ല അല്ലാത്തപ്പം വെള്ളവും പെയ്യും അതുപോലെതന്നെ വെയിലും ഉണ്ടാവും